മുങ്ങിമരിക്കുന്നതിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്തുക എന്നു പറയുന്നത് മറ്റും നല്ല കാര്യമാണ് കാരണെച്ചഴിഞ്ഞാല് നീന്തലറിയാവുന്ന ആള്ക്കാര്ക്ക് വെള്ളത്തില് മുങ്ങുന്നൊരാളെ രക്ഷപ്പെടുത്താന് കഴിയുകയുള്ളു അവരെ രക്ഷപ്പെടുത്തി കരയ്ക്ക് കൊണ്ട്വന്ന് കഴിഞ്ഞുകഴിഞ്ഞാല് ഉടന് തന്നെ അവര്ക്ക് ശ്വാസം നെ കിട്ടുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കാം ഫസ്റ്റേയ്ഡ് കൊടുക്കണം ഫസ്റ്റേയ്ഡ് കൊടുക്കുന്നതിനു മുമ്പവര് കുടിച്ച വെള്ളം പുറത്തേ ക്ക്ഉണ്ട് അവരുടെ വയറില് അമര്ത്തി ചെറുതായിട്ടമര്ത്തി അമര്ത്തിക്കൊടുത്ത് കഴിഞ്ഞുകഴിഞ്ഞാലാ വയ അവര് കുടിച്ച വെള്ളം പുറത്തേയ്ക്ക് പോവും അതുതന്നെ അവര്ക്കേറ്റവും നല്ല റിലാക്സാവുന്ന കാര്യമാണ് അത് ഈയൊരു ട്രേയ്നിങ്ങ് അതായതീ ഫസ്റ്റേയ്ഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന ട്രെയിനിങ്ങിന് ട്രേയ്നിങ്ങ് സ്കൂള് തലങ്ങളില്ത്തന്നെ ജന നമ്മുടെ കുട്ടികള്ക്ക് കൊടുക്കേണ്ടതാണ് അത് എന്നാലിപ്പോളത് നടക്കുന്നില്ല അത് നടക്കേണ്ടതാണ് ഏറ്റവും കുറഞ്ഞത് ഹൈ സ്കൂള് വിദ്യാഭ്യാസം മുതലെങ്കിലും ആ ഒരു ട്രേയ്നിങ്ങ് കൊടുത്താല് നല്ലതാണ് നമ്മുടെ ഫയര്ഫോഴ്സുദ്യോഗസ്ഥന്മാര് അങ്ങനെയുള്ള പല ഉദ്യോഗസ്ഥന്മാരും ഇതിലൊക്കെ നല്ല കഴിവുള്ള ഇത് അവര്ക്ക് ട്രെയിനിങ്ങൊക്കെ കിട്ടിയിട്ടുള്ളവരാണ് അവര് അതിനായിട്ട് നിയോഗിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് ആവശ്യത്തിന് ഇന്നെ ഫയര്ഫോഴ്സുദ്യോഗസ്ഥന്മാര് എല്ലായിടത്തും എല്ലാ സ്കൂളുകളിലും അതിന്റെ ട്രേയ്നിങ്ങൊക്കെ കൊടുത്തുകഴിഞ്ഞാല് നല്ലതാണ് അതുപോലെതന്നെ സംഘടനകള് ഇന്നെ മത സ്ഥാപനങ്ങള് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങള് കേന്ദ്രീകരിച്ച് ഫസ്റ്റേയ്ഡ് എന്നതിനേക്കുറിച്ച് നല്ലൊരു ബോധവല്ക്കരണം നടത്തുന്നത് വളരെ ഉചിതമായിരിക്കും അത് ചെയ്യേണ്ടത് തന്നെയാണ് ഇന്നെ എങ്കില് മാത്രമേ ഇങ്ങനെ അത്യാവശ്യ സന്ദര്ഭങ്ങളില് നമ്മള്ക്ക് ഇന്നെ അവര്ക്ക് ഫസ്റ്റേയ്ഡ് കൊടുത്ത് അവരെ രക്ഷിച്ചെടുക്കുവാനായ്ട്ട് സാധിക്കുകയുള്ളു